ഹലോ ആ ഇത് ബീച്ച് സൈഡിൽ ഉള്ള റസ്റ്റോറൻറ് അല്ലേ ആ ഓക്കേ ഞാൻ നിങ്ങളെ സ്ഥിരമായിട്ട് മറ്റേ മുക്കത്ത് നിന്ന് വിളിക്കുന്ന കസ്റ്റമർ ആണ് ആ അതുതന്നെ അതേ സാർ അതുതന്നെയാണ് ആ അപ്പൊൾ ഞാൻ ഇപ്പൊൾ എൻറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ നിങ്ങടെ ഷോപ്പിന്റെ നമ്മളീ ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻറെ ബില്ലും കാര്യങ്ങളുമൊക്കെ ഏതെങ്കിലും ആപ്പ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുമോ പറ്റുമല്ലേ ആ ഓക്കേ അപ്പൊൾ നമുക്ക് ആ ആപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്നു പറഞ്ഞുതരാമോ അല്ല എനിക്ക് കമ്പനിയിലേക്ക് ഒരു ഇത് മെയിൽ ചെയ്യാനാണ് കാരണം നമ്മുടെ ഫുഡിന്റെ എക്സ്പെൻസും കാര്യങ്ങളുമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ സൊ അത് എനിക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കേ ആ ഈ നമ്പറിൽ തന്നെയാണ് എനിക്ക് വാട്സപ്പ് ഉള്ളത് ആയിക്കോട്ടെ എന്നാൽ ലിങ്ക് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതിനകത്ത് കേറീട്ട് നമ്മള് നോക്കിയാൽ മതിയല്ലോ അല്ലേ ഡേറ്റിന് അനുസരിച്ചുള്ള ആ ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളോടു പറയാം നിങ്ങള് ജസ്റ്റ് എനിക്ക് എൻറെ ബില്ലും കാര്യങ്ങളും ഒന്ന് എടുത്തു തരണം കേട്ടോ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ആയിക്കോട്ടെ ശരി എന്നാൽ